യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആള്ക്കാരിപ്പോൾ ഉണ്ടാകില്ല കാരണം ഈയൊരു കാലഘട്ടം തന്നെ യാത്രകളുടെ കാലഘട്ടമാണ് ഓരോ ഒഴിവു ദിവസങ്ങളിലും നമ്മളായാലും നമ്മുടെ വീട്ടുകാരായാലും എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എവിടെ പോകുക എന്നാണല്ലേ എങ്ങോട്ട് പോകാം ആരുടെ വീട്ടിൽ പോകാം ഏത് സ്ഥലത്ത് പോകാമെന്നുള്ള അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാനെന്റെ ഫാമിലിയും ഫ്രീ കിട്ടിയാൽ എപ്പോൾ വേണോ ഒഴിവ് കിട്ടുന്നത് ഒരു ദിവസമൊക്കെ കിട്ടിയാൽ ഞാന് നേരെ കൂര്ഗിലേക്കായിരിക്കും കൂര്ഗെന്നു പറയുന്നത് എനിക്കിവിടുന്നൊരു നൂറ് കിലോ മീറ്റര് ടിസ്റ്റന്സേ ഉള്ളൂ ഒന്ന് വണ്ടിയെടുത്തു കഴിഞ്ഞാൽ നേരെ എന്ത് കൊണ്ടാണ് കൂര്ഗെന്നു ചോദിച്ചാൽ തണുപ്പാണ് ക്ലൈമെറ്റായിട്ട് ഭയങ്കര ചേയ്ഞ്ചസ്സാണ് എന്റെവിടെ ഒരു ട്വെന്റ്റി ഫൈവ് ടു തേര്ട്ടിയായിരിക്കാം അധികം ക്ലൈമെറ്റുണ്ടാകുന്നെങ്കിൽ ആ കൂര്ഗിനെ സംബന്ധിച്ചോളം ഒരു ഫിഫ്റ്റീന് ടു ട്വൻറ്റി ഫൈവായിരിക്കും ഫിഫ്റ്റീന് ടു ട്വൻറ്റി ആയിരിക്കും തീര്ച്ചയായിട്ടും നമ്മുടെയൊരു സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ടിരിക്കണം നമ്മൾ ഈ യാത്രയെന്നു പറയുമ്പോൾ ചിന്തിക്കുന്നതു തന്നെ നമ്മൾ ഇവിടുത്തെ ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനിൽ നിന്നു മാറിയിട്ട് വേറെ സ്ഥലത്ത് വേറൊരു സിറ്റുവേഷനിൽ അപ്പം അതുകൊണ്ട് എനിക്കിവിടേറ്റവും അടുക്കലെത്താന് പറ്റുന്നതും ബൈ റോഡായാലും ഏറ്റവും കൂടുതല് അടുത്തെത്താന് പറ്റുന്നത് കൂര്ഗായിരിക്കും അതുകൊണ്ട് കൂര്ഗിലേക്കാണ് നമ്മൾ പോകല് പോയാൽ അവിടെ എന്റെ ഫ്രണ്ടിന് ഈ ഹോം സ്റ്റേയ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് റൂമിന്റെ പ്രശ്നം വരില്ല മുൻപേ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എടാ റൂം ഹോം സ്റ്റേ റെഡിയാകും അതല്ലെങ്കില് തന്നെ അവിടെ ആയിരകം മൂവായിരവും നാലായിരവും പതിനയ്യായിരം ടു ഒരു ഹോം സ്റ്റേയ്സാണ് ഈ കൂര്ഗിലുള്ളത് അതായത് ഈ അടുത്ത കാലത്ത് സര്വ്വേയിൽ ഇന്ത്യയിൽ ഏറ്റവുമധികം ടൂറിസ്റ്റ് വരാനാഗ്രഹിക്കുന്ന സ്ഥാ പത്ത് സ്ഥലങ്ങളിൽ ഒന്ന് കൂര്ഗായി മാറിയിട്ടുണ്ട് അപ്പോൾ അത്രയും നല്ലൊരു സ്ഥലം എന്റെ നാട്ടിന്റടുത്ത് തന്നെയല്ല എന്റെ വീട്ടിന്റടുത്ത് തന്നെയുണ്ടെന്നു പറയുമ്പോൾ കാരണം ഓരൊരു ഒന്നോ രണ്ടോ മണിക്കൂറിലെത്താന് പറ്റുന്ന ഒരു സിറ്റുവേഷനിലിണ്ടെന്നു പറയുമ്പോൾ തീര്ച്ചയായിട്ടും നമ്മൾ അങ്ങോട്ടായിരിക്കുമല്ലോ പോകുന്നത് പിന്നെ ഈ മക്കള്ക്കെന്നു വെച്ചാൽ അവര്ക്ക് പുറത്തു പോയാൽ മതി അവര്ക്ക് സ്ഥലവും കാര്യങ്ങളും ഒന്നും പ്രത്യേകമല്ല പുറത്തു പോയാൽ മതി പക്ഷെ നമ്മൾ ആലോചിക്കുന്നതെന്നു വെച്ചാൽ കൊച്ചു സംവിധാനത്തിൽ നമ്മുടെ ബിസിനസ്സായാലും നമ്മുടെ ഈ തിരക്കുകളിലും ഫോണുകളിൽ നിന്നെല്ലാം ഒരു മാറി നിൽക്കുന്നൊരു സ്ഥലമാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ കൂര്ഗിലേക്കു പോകും കൂര്ഗിലേക്ക് സാധാരണയിപ്പോൾ എന്റെ ഫാമിലി മാത്രമല്ല എന്റെ ഫ്രണ്ടുണ്ടാകും അവരുടെ ഫാമിലി ഉണ്ടാകും രണ്ട് ഫാമിലിയായിട്ടാണ് പോകാറ് അപ്പം പോകുമ്പോൾ യാത്രയാകുമ്പോൾ ഒരു ഫാമിലി പകരം രണ്ട് ഫാമിലിയൊക്കെയായിട്ടാണ് കൂടുതൽ കംഫര്ട്ടാണ് നമുക്ക് അതല്ലെങ്കിൽ ഈ മക്കള്ക്കും ഭാര്യമാര്ക്കൊക്കെയെല്ലാം ഓക്കെയാണ് ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് അത്ര ഓക്കെ അല്ല നമ്മൾ ഒരു ഒറ്റപ്പെടാ അവരെ ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്നതു തന്നെ നമുക്ക് നമ്മൾ ഫാമിലിയായിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്വം മൊത്തം അവർ നമ്മുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനവരെ നോക്കാന് അവരെ സന്തോഷത്തിനായിരിക്കും അതുകൊണ്ട് നമുക്കവിടെ വലിയ റോളുണ്ടാകുന്നില്ല നേരെ മറിച്ചു പോകുമ്പോൾ വേറൊരു ഫാമിലി കൂടിയുണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് കുറേ എന്റര്ടെയിന്മെൻറ്റ്സ് ചെയ്യാന് പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ഞാന് പറയുകയെന്നു വെച്ചാൽ ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ ഫാമിലിയിലുള്ള വേറൊരു ഫാമിലിയും കൂടെ കൂട്ടിയാൽ ആ ഒരു യാത്ര തന്നെ ആ ഒരു മൊമെന്റ്റ് നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷിക്കാന് പറ്റും അപ്പോൾ എന്ജോയ് ചെയ്യാന് പറ്റും നമുക്ക് പിന്നെ കൂര്ഗിനെ കുറിച്ച് പറയുന്നെങ്കിൽ ഭയങ്കരം ക്ലൈമറ്റ് മുതൽ ഭയങ്കരം ശാന്ത സുന്ദരമായ സ്ഥലമാണ് അതുപോലെ തന്നെ വൃത്തി അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിലൊക്കെ മെയിന് പ്രശ്നം എന്നു പറയുന്നത് വൃത്തിയില്ലായ്മയാണ് പല സിറ്റീസും അതായത് നമ്മുടെ താജ്മഹല് എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനമാണ് വേൾഡ് വണ്ടേര്സിലൊന്നാണ് പക്ഷെ ഈ താജ്മഹലിന് ഒരഞ്ചു കിലോ മീറ്ററപ്പുറത്തും ഇപ്പുറത്തും നോക്കിയാൽ ചേരികളിലൊക്കെ നമുക്ക് തലതാഴ്ത്തിപ്പോകും അത്ര വൃത്തികേടായിരിക്കും ആ ചേരികളൊക്കെ അവിടുത്തെ സ്ലംസ് അപ്പോൾ ആ ഒരു സിറ്റുവേഷന് തീരെയില്ലാത്തൊരു നാടാണ് ഈ കൂര്ഗി കൂര്ഗെന്നു പറയുന്നത് അവിടുത്തെ കൂര്ഗികൾ അവർ കൂര്ഗികളെന്നു വെച്ചാൽ വൃത്തിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോട്ടെന്സ് കൊടുക്കും അപ്പോൾ അതുകൊണ്ടു തന്നെ അവരെ റോഡുകളായാലും റോഡ് തെ തെരുവുകളായാലും വീടുകളായാലും പോസ്റ്റ് പ്ലേസുകളായാലും എല്ലാം ഭയങ്കര നീറ്റായിരിക്കും വൃത്തിയായിരിക്കും ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പകുതി നിറയും എന്നു പറഞ്ഞില്ലേ സന്തോഷം കൊണ്ട് അതായത് നമ്മൾ ഒരേ സന്തോഷിക്കാന് വേണ്ടിയിട്ടാണല്ലോ നിരന്തരം യാത്ര ചെയ്യുന്നത് ഈ സന്തോഷത്തിന്റെ പീക്ക് ലെവലിലേക്കെത്തിക്കും അവർ നമ്മളെ പിന്നെ അതുമാത്രമല്ല നമ്മൾ ഈ പോയവർ ആടെന്തെങ്കിലും ഇപ്പോൾ നമുക്ക് പലപ്പോഴും കാണലുണ്ട് ഒരു വണ്ടി യാത്ര വണ്ടീന്നന്നെ ഓറഞ്ചിന്റെ തൊലികളായാലും പ്ലാസ്റ്റിക് കവറുകൾ ബിസ്ക്കറ്റിന്റെ കവറുകൾ ഇങ്ങനെ വലിച്ചെറിയും പുറത്തേക്ക് ഇങ്ങനെയുള്ള സംഭവമൊന്നും ആടെ ഉണ്ടാകില്ല ഒരു പ്രാവശ്യം ഞാന് പോകുന്ന സമയത്ത് ഒരു എന്തോ ഒരു ചെറിയ ഇഷ്യൂ നടക്കുന്നുണ്ട് നോക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ഒരു ഒരു കേരളത്തിൽ നിന്നു പോയ ഒരു വണ്ടി ഒരു കാറ് കാറിൽ നിന്ന് വേസ്റ്റ് വേസ്റ്റ് പ്ലാസ്റ്റിക് കവറില് കെട്ടി പുറത്തേക്കെറിഞ്ഞു റോഡ് സൈഡിലേക്കെറിഞ്ഞു ഇത് അവിടുത്തെ ലോക്കല്സ്സാരോ കണ്ടിട്ട് അവർ വന്ന് വണ്ടി തടഞ്ഞിട്ട് അവരതിലേക്കിട്ടു കൊടുത്തു അങ്ങനെ ഭയങ്കര വഴ വാക്ക് തര്ക്കം നടന്നു പക്ഷെ വഴക്ക് നടക്കുന്ന സമയത്ത് അവിടെ നാട്ടുകാർ മൊത്തം കൂടി കാരണം ഈയൊരു കാര്യത്തിൽ അവരൊറ്റക്കെട്ടാണ് അതാണ് ശത്രുക്കൾ മിത്രങ്ങളൊന്നുമില്ല വൃത്തിയുടെ കാര്യത്തിൽ അപ്പോൾ അതുകൊണ്ടു തന്നെ ഈ കൂര്ഗ് എന്തുകൊണ്ട് സെലക്റ്റ് ചെയുന്നെന്നു ചോദിച്ചാൽ ഇതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട് സാംസ്ക്കാരികപരമായ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായാലും ഒരുപാടു പ്രത്യേകതകളുണ്ട് ഈ കൂര്ഗിന് അപ്പോൾ നാം എന്റെ നാട്ടിൽ നിന്നും അല്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഭയങ്കര വ്യത്യാസമാണ് നൂറ് കിലോ മീറ്ററേ ഡിസ്റ്റന്സുള്ളെങ്കിൽ പോലും ദൂരം ഉള്ളെങ്കിൽ പോലും അതിന്റെ ആമ്പിയന്സ് രണ്ടും രണ്ടാണ് അതായത് ലാന്ഡ് സ്കേപ്പായാലും അല്ലാ നാട്ട് ആള്ക്കാരായാലും അവിടുത്തെ ഭക്ഷണരീതിയാലും ഭക്ഷണങ്ങളായാലും എല്ലാം ഇന്നിപ്പോൾ എല്ലാ നാട്ടിലും എല്ലാ ഭക്ഷണം കിട്ടും പ്രത്യേകിച്ച് അറേബ്യന് ഫുഡ്സ് കാരണം കോമണായിട്ട് മാറി കഴിഞ്ഞു നമ്മുടെ ഫു ഭക്ഷണത്തേക്കാളും കൂടുതൽ അറേബ്യന് ഫുഡ് ആയിട്ട് മാറി കഴിഞ്ഞു ഏഹ് പക്ഷെ എന്നിരുന്നാലും നമുക്ക് വെറയി അവരുടെ വെറയിറ്റീസ് ഓഫ് ഫുഡ് ഇപ്പം പല സാധനങ്ങളും കിട്ടാന് പച്ചക്കറികൾ പോലും നമ്മൾ ഈടെ കിട്ടാത്ത പല പച്ചക്കറികളും ആടെ കിട്ടും അതും ഭയങ്കര ഫ്രഷായിരിക്കും ഇപ്പോൾ ഞാനൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചൊരുപാട് പച്ചക്കറി വാങ്ങിക്കും കാരണം അവിടുത്തെ ഭയങ്കര ഫ്രഷായിരിക്കും അവിടുത്തെ കാലവസ്ഥ അങ്ങനെ കൊണ്ടായിരിക്കാം ഭയങ്കര ഫ്രഷ് ഫീൽ ചെയ്യും അതുപോലെ തന്നെ അവിടുത്തെ പൂക്കൾ ചെടികൾ പൂക്കളൊക്കെ ഭയങ്കര കളര്ഫുള്ളായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതായത് ഈ തണുപ്പ് പ്രദേശങ്ങളിൽ ഇപ്പോൾ ഊട്ടിയായാലും കൂര്ഗായാലും അതുപോലെ ഉള്ള പ്രദേശങ്ങളിലെ പൂക്കള്ക്കൊക്കെ ഭയങ്കര കളറായിരിക്കും റെഡ് എന്നു വെച്ചാൽ സെയിം പൂവാണ് നമ്മുടെ വീട്ടിലുള്ളത് നമ്മളെക്കാളും ഭയങ്കര അട്ട്രാക്റ്റീവായിരിക്കും ഈ സാധനങ്ങൾ പൂവൊക്കെ അപ്പം അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസമല്ലേ അതായത് ഈ മനസ്സിലെ പച്ചപ്പ് എന്നു പറയത്തില്ലേ അതായത് ഒരു നാട് ഭയങ്കര പച്ച പച്ചയായി കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും അപ്പം അതുപോലെ ഈ പച്ചക്കളറും അതിൽ കിടക്കുന്ന ചുവന്ന പൂക്കളും മഞ്ഞ പൂക്കളും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും അതൊക്കെ നമ്മുടെ മനസ്സിലങ്ങനെ എന്ജോയ് ചെയ്യും നമ്മളറിയാണ്ട് തന്നെ നമ്മളിങ്ങനെ എന്ജോയ് ചെയ്തുകൊണ്ടുണ്ടാകും അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കൂര്ഗിലേക്ക് പോകാന് കാരണം കൂടാതെ മക്ക ഫാമിലിക്കും ഭയങ്കര സന്തോഷമായിരിക്കും അത് കാരണം നമ്മൾ ഹാപ്പിയായിരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരും ഹാപ്പി ആയിരിക്കുമല്ലോ പിന്നെ ഇവർ നോക്കുമ്പോൾ ഒരു ബഹളങ്ങളില്ല നല്ല ശാന്തസുന്ദരമായ കര സ്ഥലങ്ങൾ നല്ല പശുക്കൾ മൃഗങ്ങൾ ശാന്തസുന്ദരം എന്നു പറയുന്നതു പോലെ അതുപോലത്തൊരു ക്ലൈമറ്റും അന്തരീക്ഷവും അതുപോലെതന്നെ ആള്ക്കാരും ഭക്ഷണവും എല്ലാം അപ്പോൾ അതുകൊണ്ടു തന്നെയാണ് ഈ കൂര്ഗ് നമുക്ക് പ്രിയപ്പെട്ടതാകുന്നത്